പെയിൻ്റിങ്ങില് നമുക്ക് പലതരത്തിലുള്ള കളറുകളും ഉപയോഗിക്കാം വാട്ടര് കളര് പിന്നെ അര്ക്കലിക്ക് പെയിന്റ് അതെപോലെതന്നെ പോസ്റ്റര് കളര് അങ്ങനെ പലതരത്തിലുള്ള കളറുകളും ഉപയോഗിക്കാം ഓരോ തരത്തിലുള്ള പെയിൻ്റിങ്ങിനും ഓരോ കളറാണ് ഉപയോഗിക്കുന്നത് വാട്ടര് കളർ പേപ്പറിലാണ് ഉപയോഗിക്കുന്നത് അതെപോലെതന്നെ അര്ക്കലിക്ക് പറയണത് ക്യാന്വാസിലും പോസ്റ്റര് കളറും പേപ്പറിലാണ് ഉപയോഗിക്കുന്നത് അതിന് വ്യത്യസ്ത തരമായ രീതികളും അതെ വ്യത്യസ്ത തരമായ ഭംഗിയുമാണുള്ളത്